നമ്മുടെ സം സംസ്ഥാനത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പം പ്രത്യേ അതായത് ലാൻഡ്മാർക്കുകൾ ഉള്ള ആരാധനാലയങ്ങൾ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെയിപ്പോ ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഗുരുവായൂർ ഗുരുവായൂരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രാണ് നമ്മള് കൂടുതലും കല്യാണം വിവാഹങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് വിവാഹങ്ങള് ഒരു ദിവസം തന്നെ പത്തും മുന്നൂറും മുന്നൂറ്റി മുന്നൂറും അഞ്ഞൂറും വിവാഹങ്ങള് നടക്കുന്നൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ അതുപോലെ ചോറൂണ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകപ്രസിദ്ധം എന്നുതന്നെ പറയാം പിന്നതുപോലെ തന്നെ ശബരിമലയും ശബരിമലയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനാ ഭാഷകളിലുള്ള ആൾക്കാരും പിന്നെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ശബരിമലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയും നമുക്ക് പറയാം അതായത് ലോകത്തിലെ എല്ലാർക്കും അറിയുന്നതായിരിക്കും ഏകദേശം എല്ലാവർക്കും ശബരിമലയുടെ സവിശേഷതകള് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അതുപോലെതന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മൂകാംബിക അമ്പലം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുനെല്ലി നമുക്ക് തിരുനെല്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതായത് പിതൃകർമങ്ങൾക്കൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഏകദേശം പിന്നതുപോലെതന്നെ ഒരുപാട് പള്ളികള് മോസ്ക്കുകൾ ഒക്കെയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാടുണ്ട് അപ്പം ലാൻഡ്മാർക്ക് ഇതൊക്കെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന മതപരമായ ലാൻഡ്മാർക്കുകളാണ്